എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ് പാരിസ്ഥിതിക പ്രശ്നവെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് ചൂട് കൂടി വരുന്നു അതുപോലെതന്നെ എന്നാ മലക ഒര് ഒരു സമയത്തങ്ങ് മഴയാണ് മഴ മഴ കൂടുതലായത് കൊണ്ട് മണ്ണിടിച്ചിലും പ്രശ്നങ്ങള് എല്ലാം ഉണ്ടാകുന്നു ആര്ക്കും ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു നാടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു പ്രദേശം നമ്മുടെ നാട്ടില് അതുകൊണ്ട് പല പല കൃഷികളും നമുക്ക് ചെയ്യാന് പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെക്കാലത്ത് ചൂടുള്ള സമയത്ത് ചെയ്തിരുന്ന കൃഷി കള് ഇപ്പഴത്തെ ഇപ്പഴാ സമയം വെച്ച് ആ മാസങ്ങളില് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു കാരണം ആ മാസത്തില് ഇപ്പഴ് മഴയാണ് ഈ കിട്ടുന്നത് ഇനി മഴ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ഈ സമയത്തവിടെ ആ സമയത്ത് നമുക്ക് ചൂടാണ് ലഭിക്കുന്ന് അങ്ങനെ ഇതെല്ലാം നമ്മുടെ മാനസിക മാനസിക സാമൂഹിക പ്രശ്നങ്ങളെ എല്ലാം ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും